ഹലോ ആ ഫുഡ് ഐറ്റംസ്ൻ്റെ ഇതിനുവേണ്ടീട്ടാരുന്നു ഓർഡർ ചെയ്യാൻ വേണ്ടീട്ടാരുന്നു രാത്രിയിലെ സദ്യനെ പറ്റിയാണ് അറിയേണ്ടത് രാത്രിയുള്ള സദ്യ എങ്ങനെയാണ് ആ ആ ആ

ആ ആ ആ വെറൈറ്റിയല്ലേ ആ ആ ആ ആ

അതുപോലെത്തെ വേറെ എന്ത് ഐറ്റമാണ് ഉള്ളത് ആ ആ അല്ലെ ആ ആ ആ എന്നാൽ ഈ അപ്പോം ആ മറ്റേ ഇറച്ചിക്കറിയും ആക്കാം നമുക്കെന്നാൽ ആ ഒരു ഒരാഴ്ചക്ക് മുൻപ്വരെ പറയാം ഓർഡർ ഉള്ളത് ഒരാഴ്ച്ചക്കെ മുൻപ് ഓർഡർ തരാംന്നു ആ ആ ആ ആ ആ ആ ആ ആ ആയിക്കോട്ടെ ഞാൻ എന്നാൽ വിളിക്കാം എന്നാൽ